ഇന്ത്യയില് സാങ്കേതികവിദ്യ വന്നതോടുകൂടി പല മാറ്റങ്ങള് സംഭവിച്ചിട്ടുണ്ട് അതില് പ്രത്യേകമായിട്ട് എന്താണ് ഓൺലൈൻ സംവിധാനങ്ങള് കൂടുതലായിട്ടു കൂടി എന്താണെന്നുവച്ചാല് ഇപ്പോള് നേരിട്ടു പോയി ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പോള് പലരും ഫോണിലൂടെയാണു ചെയ്യുന്നത് പിന്നെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ഇപ്പോള് കൊറോണ സമയത്തു നിർത്തി വച്ചപ്പോള് വിദ്യാഭ്യാസം വരെ ഫോണിലൂടെയായിരുന്നു അന്നു നടത്തിക്കൊണ്ടിരുന്നത് പല മേഖലകളില് ഇപ്പോള് നിരവധി എന്താണ് സാങ്കേതികവിദ്യ വന്നതുകൊണ്ടു പല മേഖലകള് വികസിച്ചു തുടങ്ങി പലർക്കും ഉപകാരവും ചില എന്താണ് പലർക്കും ഫോണ് കൊണ്ടു ദോഷവും ഉണ്ടാകുന്നുണ്ട് സാങ്കേതിക വിദ്യകള് കൊണ്ട് ഇപ്പോള് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഉപയോഗം വച്ചുനോക്കുകയാണെങ്കില് എത്രയും നല്ലതാണ് എന്നുവച്ചാല് നമുക്കിപ്പോള് നേരിട്ടു പോയി ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കില് നമ്മുടെ ടൈം വേസ്റ്റാകും അതു കുറേ ഭവിഷ്യത്തുകൾ അല്ല നമുക്ക് അതുമായിട്ടു ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടുണ്ടാവുന്നത് നമ്മളെ സമയം വേസ്റ്റാകും പിന്നെ കൂടുതൽ നേരം വരി നിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സോൾവാണ് ഈ സാങ്കേതികവിദ്യ വന്നതുകൊണ്ടൊരുപകാരം പിന്നെ എന്താണ് ഈ സാങ്കേതിക വിദ്യകള് കൊണ്ടുവന്നതുകൊണ്ടുതന്നെ മനുഷ്യന്മാരൊക്കെ മാറി ആ സാധാരണ രീതിയില് ആദ്യകാലങ്ങളിലൊക്കെ എല്ലാവരും നേരിട്ട് എന്താണ് സമ്പാദിക്കുന്നവരൊക്കെ പലരും ഫോണിലൂടെയാണ് ഇതാക്കുന്നത് പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെന്നുള്ളവർക്കൊക്കെ നല്ല ഉപയോഗമാണു നാട്ടിലുള്ളവരെ എന്താണ് കാണാനും വിളിക്കാനും ഒക്കെ ഫോണ് നല്ല ഉപയോഗമാണ് പിന്നെ ഇപ്പോള് കുറച്ചു വർഷങ്ങളായിട്ട് ഇപ്പോള് ഏകദേശം കൊറോണ വന്നതിനുശേഷമായിരിക്കും ഏറ്റവും കൂടുതല് ഫോണ് യൂസെയ്യാൻ തുടങ്ങിയത് മറ്റു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടിയത് എന്നുവച്ചാല് ഇപ്പോള് കൊറോണ വന്നതുകൊണ്ടു മൊത്തം ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ടു പലർക്കും ഇപ്പോള് പഠനമായിക്കോട്ടെ കൂടുതൽ പഠിക്കുന്ന മക്കള്ക്കു പഠിക്കാനും അതേപോലെ തന്നെ നമുക്കു പെട്ടെന്നു ചെയ്തുതീർക്കേണ്ട പല കാര്യങ്ങളും ഓൺലൈനിലൂടെയായിരുന്നു ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോള് അതൊക്കെക്കൊണ്ടു നോക്കുകയാണെങ്കില് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് നമുക്കു ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങള് ഇതൊക്കെ തന്നെയാണ് ഓൺലൈനിലായിട്ടും എന്താണ് ഫോണിലായിട്ടുള്ള കൂടുതല് സാങ്കേതികവിദ്യയായിട്ട് അടുത്തറിയാൻ സാധിച്ചു പിന്നെ അതിനെക്കുറിച്ചു കൂടുതൽ പഠിക്കാനും അത് ഒരു എന്താണ് വ്യാപകമാവുകയും ചെയ്തു അപ്പോള് അതിനെക്കുറിച്ചു പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കില് എന്താണ് മെയിനായിട്ട് ഇതുതന്നെ ഈ ഓൺലൈനായിട്ടുള്ള സംവിധാനങ്ങള് കൂടി പല എന്താണ് ബിസിനസ്സുകള് ഓൺലൈനായിട്ടു തുടങ്ങി പലരും ഇപ്പോള് ഓൺലൈൻ വർക്കുകളായിട്ടു ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ സാങ്കേതിക വിദ്യകള് കൊണ്ടുള്ളൊരു ഉപയോഗമാണ്